കേരളത്തിലെ നെൽകൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ കൃഷിരീതികൾ നെൽകൃഷി രീതികൾ പല രീതിയിലുണ്ട് വടക്കൻ ജില്ലകളിലെ ബെത്യസ് വ്യത്യസ്തമാണ് തെക്കൻ ജില്ലകളിലെ തെക്കൻ ജില്ലകളില്നിന്ന് ബെത്യാസമാണ് പടിഞ്ഞാറൻ ജില്ലകളില് അതായത് ആലപ്പുഴയില് പോലുള്ള കുട്ടനാട് മേഖലകള് കിഴക്കൻ ജില്ലകളില് രണ് മുണ്ടകൻ കൃഷിയെന്ന് പറഞ്ഞ ഒരു രീതിയുണ്ട് കരപ്രദേശങ്ങളിലെ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം കൃഷിയ്യുന്ന ഒരു രീതി അത് നമ്മുടെ വർഷകാലങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടേ കേരളത്തിലെ മഴ കിട്ടുന്ന വെള്ളം ധാരാളമുള്ള സമയത്ത് ഇത് കൃഷിയ്യ്ന്ന ഒരു രീതിയാണ് കൂടുതല് മഴ പെയ്ത് അല്ലെങ്കില് ജൂൺ മാസത്തില് കൂടുതലും മഴപെയ്ത് മൺസൂ മണ്ണ് നല്ലപോലെ നനഞ്ഞതിനുശേഷം കൃഷിചെയ്യുന്ന ഒരു മുണ്ടകൻ രീതിയുണ്ട് എന്നാൽ കുട്ടനാടിനെ സംബന്ധിച്ച് പറയാണെങ്കില് കുട്ടനാട്ടിലെ രണ്ട് കൃഷി രീതികളുണ്ട് രണ്ട് കൃഷി രീത എന്നു പറയുമ്പോൾ പുഞ്ചക്കൃഷി അത് കണക്കന്നെ രണ്ടാം കൃഷിയെന്ന് പറയുന്ന അങ്ങനെ രണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം വിളവെടുക്കുന്ന കൃഷി രീതികളാണുള്ളത് അത് കുട്ടനാട്ടിലെ ബെതക്ക്ന്ന വില്ല്കൾ വിത്തുകൾക്ക് ഏതാണ്ട് തൊണ്ണൂറ് ദിവസം അല്ലെങ്കില് നൂറ് ദിവസം നൂറ്റിയിരുപത് ദിവസം വരെ വിളവ് ലഭിക്കുന്ന ദൈർഘ്യമുള്ള വിളകളായിരിക്കും കുട്ടനാട്ടിൽ മിക്കവാറും കൃഷിയ്യാറുള്ളത് ഇന്ന് ഒത്തിരിയേറെ ചെറിയ ഹ്രസ്വമായിട്ടുള്ള വിത്തുകളും ഒണ്ട് ദീർഘമായിട്ടുള്ള വിത്തുകളുമുണ്ട് എന്നാൽ ഏകദേശം തൊണ്ണൂറ് ദിവസം മുതല് നൂറ്റിയിരുപത് ദിവസം വരെ വിളവെടുക്കുന്ന കൃഷികളാണ് കുട്ടനാട്ടിൽ നെൽകൃഷികൾ സാധാരണായിട്ട് കണ്ടു വരുന്നത് ഒരു കൃഷി തുടങ്ങി മൂന്ന് മാസത്ത് കുട്ടനാട്ടിലെ നെൽകൃഷികളെന്നു പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തേ പറഞ്ഞിരുന്ന പോലെ പാട ശേഖരങ്ങള് കുട്ടനാടിൻറ്റെ കായൽ പ്രദേശങ്ങള് വണ്ട്ക്കെട്ടി ബണ്ടുകെട്ടിയതിനു ശേഷം അതിനിന്ന് എഞ്ചിൻ അല്ലെങ്കില് മോ സമയത്ത് ഒര് മോട്ടർ വെച്ച് പമ്പെയ്ത് വെള്ളം വറ്റി വറ്റിച്ച് അതിലാണ് അവര് കൃഷിചെയ്യുന്നത് അത് ഏത് സമയത്തും വെള്ളം ഉ ഉറവയായ്ട്ട് ഈ പാടശേഖരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഏതാണ്ട് എല്ലാ സമയത്തും തന്നെ ഈ മോട്ടറ് സ് പ്രവർത്തിച്ച് കൊണ്ടേയിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോള് മഴയെ ആശ്രയിച്ചാണ് കുട്ടനാട്ടിലെ കൃഷികള് കുട്ടനാട്ടീന്നല്ല പൊതുവേ കേരളത്തിലെ എല്ലാ കൃഷികളും മഴയെ ആശ്രയിച്ചാണ് ചെയ്യുന്നത് മഴയെ ആശ്രയിച്ചാണ് ചെയ്തോണ്ടിരിക്കുന്നത് മഴ കുട്ടനാട്ടില് രണ്ടാം കൃഷി അല്ലേലാദ്യത്തെ കൃഷിയെന്ന് പറയുമ്പോൾ ഏതാണ്ട് ജനു ജനുവരി മുതല് ഫെബ്രവരി വരേയുള്ള മാസങ്ങളില് കൃഷി ചെയ്യുന്നു ഏപ്രിൽ മെയ് മാസങ്ങളില് വിളവെടുപ്പ് നടത്തുകയും മെയ്ക്കു ശേഷം വരുന്ന കാലവർഷം ജൂൺ മാസത്തിലെ കാലവർഷത്തിനു മുമ്പായിട്ട് തന്നെ വിളവെടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊണ്ടാണ് അല്ലെങ്കില് അങ്ങനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കുട്ടനാട്ടിലെ കൃഷി ചെയ്യുന്നത് ജൂൺ മാസത്തിന് ശേ മെയ് മാസത്തിനു ശേഷം അല്ലെങ്കി ഏപ്രിൽ മെയ്ലേ വിളവെടുത്തതിനുശേഷം പാടശേഖരങ്ങള് പാടശേഖരങ്ങള് തുറന്നുവിട്ട് ഇതിൽ വെള്ളം കയറ്റി ഒരു മാസം വെള്ളം കയറ്റി കിടക്കുന്നു ഈ സമയങ്ങളില് ഇവിടെ പലേയ്ല് സർവ്വസാധാരണ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് മീൻ കൃഷി ചെയ്യുന്നൊരു സംവിധാനം കൂടിയുണ്ട് ഈയൊരു ഒരു മാസവും രണ്ടു മാസവും വെള്ളം കയറി കിടക്കുമ്പോൾ ഇതില് മീൻ കൃഷി ചെയ്യുന്നു മീൻ കൃഷിയോടുകൂടി ഒരു നെല്ലും ഒരു മീനുമെന്നുള്ള ഒരു സംവിധാനം കൂടി ഇപ്പോൾ പലേടത്തും നിലവിലുണ്ട് മീൻ കൃഷി ചെയ്തതിനു ശേഷം ആ ഒരു ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം അത് വീണ്ടും പറ്റിച്ച് വെള്ളം വെള്ളമെല്ലാം പറ്റിയതിനു ശേഷം രണ്ടാം കൃഷിക്കുള്ള ഒരു സംവിധാനം കൂടി ചെയ്യാറുണ്ട് വർഷത്തിൽ രണ്ടു പ്രാവശ്യം കൃഷി ചെയ്യാറുണ്ട് ഇതെല്ലാം നമ്മള് പ്രകൃതിയുടെ മാനദണ്ഡങ്ങളെയെക്കെ ആശ്രയിച്ചാണ് ചെയ്യ്ന്നേ നമ്മളെ നാട്ടിലെ മഴയേയും വെയിലിനെയൊക്കെ ആശ്രയിച്ച് കൊണ്ടാണ് ഇങ്ങനെയുള്ള കൃഷി രീതികള് ചെയ്യുന്നത് അതായത് ക് കൊയ്ത്തിൻറ്റെ സമയത്ത് നമുക്കു നെല്ലുണങ്ങാനുള്ള ധാരാളം വെയില് കിട്ടുന്ന സമയവായിരിക്കണം മഴയുണ്ടാകാൻ പാടില്ല പിന്നീട് വിതച്ച് വിത്ത് വിതച്ച് അത് കിളിര്ക്കുന്ന ഏകദേശം ഒരു കിളിര്ത്തു വേരോടുന്ന സമയം വരെ നമുക്ക് മഴയില്ലാത്ത സമയായിരിക്കണം വിത്ത് വിതയ്ക്കുന്ന സമയത്തോ അല്ലെങ്കില് വേര് ഓടുന്ന സമയത്തും മഴ രൂക്ഷമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാല് ആ മഴയില് വിത്ത് നശിച്ചുപോവുകയും എന്തെങ്കിലും കിളിർക്കാൻ സാധ്യതയില്ലാതെ നശിച്ചു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് അപ്പോള് പിന്നെ കുട്ടനാട്ടിലെ അങ്ങനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രകൃതിയുടെ പ്രകൃതിയെ ആശ്രയിച്ച് പ്രകൃതിയുടെ തത്വങ്ങളൊക്കെ ആശ്രയിച്ചു കൊണ്ടാണ് കുട്ടനാട്ടിലെ കൃഷി ചെയ്തോണ്ടിരുന്നെ രണ്ട് കൃഷിരീതികളാണ് ഇവടെ കുട്ടനാട്ടിൽ ചെയ്ത ചെയ്യുന്നെ ഒന്ന് പുഞ്ച കൃഷിയും രണ്ടാം കൃഷിയും ചെയ്യുന്നുണ്ട് പിന്നേ മുണ്ടകൻ കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുണ്ടകൻ കൃഷി കൂടുതലും കിഴക്കൻ മേഖലകളില് ആണ് കൃഷിചെയ്യുന്നത് ഇതും വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ടെന്നു പറയുമ്പോൾ നല്ല മഴയുള്ള സമയം ജൂൺ മാസങ്ങളിലെ വർഷകാലത്തിനു ശേഷം നന്നായിട്ട് മണ്ണ് കുതിർത്ത് നല്ലൊരു പാകമായതിനുശേഷം ആ സമയത്താണവര് ഈ മുണ്ടകൻ കൃഷി നെല്ല് പോലുള്ള കൃഷികള് ചെയ്യുന്നത് കാർഷിക മേഖലക്ക് പറ്റിയ സമയം മണ്ണ് നല്ലപോലെ നനഞ്ഞ് ഉണങ്ങുന്ന സമയമാണ് പിന്നീട് മറ്റൊന്ന് തുലാവർഷത്തിനു ശേഷം കൃഷിയ്യ്ന്ന രീതികളുണ്ട് തുലാവർഷം ഏതാണ്ട് ഒക്ടോബര് നവംബര് മാസങ്ങളില് മഴ നന്നായിട്ട് പെയ്ത് ഭൂമിയൊക്ക നന്നായിട്ട് തണുത്തു മണ്ണ് പാകമായതിനുശേഷം കൃഷിചെയ്യുന്ന രീതികളുണ്ട് ഇങ്ങനെ കേരളത്തിലെ കൃഷിരീതികളെല്ലാം തന്നെ നമ്മള് ചെയ്യുന്നത് പ്രകൃതിയുടെ ആനുകൂല്യങ്ങളെ ആശ്രയിച്ച് കൊണ്ടാണ് കൃഷീക്കെ മുന്നോട്ട് പോകുന്നത് അത് വെയിലും മഴയും മറ്റു കാലവർഷങ്ങളൊക്കെ ഇതിന് പര്യാപ്തമാണ് ആവശ്യത്തിന് മഴ കിട്ടുന്ന സമയമുണ്ട് സമയം നോക്കി ചെയ്യുന്നുണ്ട് അതേകണക്കിനാവശ്യത്തിന് വെയില് കിട്ടുന്ന സമയത്ത് നമ്മള് വിളവെടുക്കല് നടത്തുന്നുണ്ട് വിളവെടുക്കുമ്പോൾത്തന്നെ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം വിളവെടുപ്പിന്റെ സമയത്ത് മെയ് ജൂൺ ഏപ്രിൽ മെയ് മാസങ്ങളില് നല്ല ചൂടുള്ള സമയമായതിനാൽ നെല്ലുണങ്ങാനും അതിൽ നെല്ലിന്റെ മറ്റവശിഷ്ടങ്ങള് ആനുകൂല്യമായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള കച്ചി മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണങ്ങിയെടുക്കുവാനുള്ള ഒരു സമയം കൂടി നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളില് കിട്ടാറുണ്ട് അപ്പോള് ഇങ്ങനുള്ള സാഹചര്യങ്ങളില് പ്രകൃതിയുടെ ആനുകൂല്യങ്ങളൊക്കെ ആശ്രയികൊണ്ടാകുമ്പോള് തീർച്ചയാട്ടും കേരളത്തില് കൃഷി ചെയ്യുന്നത് ഇത് ഇപ്പോള് മറ്റേ കപ്പ അതല്ലെങ്കി അത് കണക്കുള്ള ഇപ്പോള് പച്ചക്കറികള് ഒക്കെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ വർഷത്തിന് ഈ തുലാമാ മാസത്തിനുശേഷം തുലാവർഷത്തിലെ ഒക്ടോബർ മാസത്തിന് ത്തെ മഴയ്ക്കുശേഷം പലപ്പോഴും കൂട്തൽ വിളകള് ചെയ്യുന്ന കരഭൂമിയില് വിളവ് ചെയ്യുന്ന ഒരു രീതികൂടെ നമുക്ക് നിലവിലുണ്ട്